അതായത് പണ്ടൊക്കെ എടുത്ത ഫോട്ടോസ് ഇപ്പോൾ എൻ്റെ കൈയിലുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഞാൻ യൂസ് ചെയ്തോണ്ടിരുന്ന ഫോണിലൊക്കെ എടുത്ത ഫോട്ടോസ്സൊക്കെ ഒരുവിധം എന്താ പറയാ ബ്ലൂ ടൂത്ത് വഴി ഷെയർ ചെയ്തെടുത്തൊക്കെ എൻ്റെ ഫോണിൽ ഇപ്പോഴും കിടപ്പുണ്ട് പിന്നെ പണ്ടുകാലത്തുന്നു പറയുമ്പോൾ ചെറുപ്പത്തിലൊക്കെ വീട്ടുകാരെ നമ്മളെ എടുത്തിരുന്ന ഫോട്ടോസൊക്കെ അവരെ ആൽബത്തിലും കാര്യത്തിലൊക്കെ ആയിട്ടുണ്ട് പക്ഷേ ഇന്നത്തെന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്തേല്ലാം എന്താ പറയാ വലിയ രീതികളിലൊക്കെയാണല്ലോ എടുക്കുന്നതും കാര്യങ്ങളൊക്കെ ഫോട്ടോസിപ്പോൾ ക്യാമറ തന്നെ എന്താ പറയാ വ്യത്യസ്ഥത്തരത്തിലുള്ള ക്യാമറകൾ എല്ലാം തന്നെ വന്നുകൊണ്ട് എന്തുകൊണ്ടും ഫോട്ടോസിൽ തന്നെ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ എന്താ പറയാ ഇപ്പോൾ ഡി എസ് എൽ ആർ പോലുള്ള ക്യാമറയൊക്കെ വന്നതോട് കൂടി ക്ലാരിറ്റി നമ്മളെ എന്താ പറയാ നമ്മളെ മാത്രം ഫോക്കസ് ചെയ്ത് ബാക്കി ബ്ലർ ആയിട്ട് എടുക്കാനുള്ള ഓപ്ഷനൊക്കെ വന്നതോടുകൂടി ഫോട്ടോൻ്റെ എന്താ പറയാ രീതിയൊക്കെ വല്ലാതെ മാറിയിട്ടുണ്ട് അപ്പോൾ ഫോട്ടോ എടുക്കുന്നതും അത് ഇതൊക്കെ ആക്കുന്നതും എന്താ പറയാ ഒരു രീതിയിൽ എഡിറ്റ് ചെയ്യുന്നതൊക്കെയായിട്ട് വന്നിട്ടുണ്ടിപ്പോൾ അതുകൊണ്ട് ഫോട്ടോസ് കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ പണ്ടത്തെ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയും ആയിട്ടൊക്കെ വരുന്നുണ്ട് പിന്നെ ആദ്യകാലത്തെന്നൊക്കെ പറയുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ്സായിരുന്നു എന്നാൽ ഇപ്പോൾ എന്ന് പറയുമ്പോൾ എന്താ പറയാ എല്ലാം കളർ ഫോട്ടോസും നമുക്ക് അവൈലബിൾ ആണ് കാരണം കിട്ടും ക്യാമറയിൽ തന്നെ എന്താ പറയാ കളർ ഫോട്ടോ ആയിട്ട് നമുക്ക് ഇതാക്കാം പിന്നെ നമ്മുടെ കൈകളിൽ വേണമെങ്കിൽ സൂക്ഷിക്കുന്നതിനെകാട്ടും നല്ലത് ഫോണിലേക്കൊക്കെ ഇത് സേവ് ചെയ്ത് വെക്കാനൊക്കെ കഴിയുന്നുണ്ട് അത് ഇപ്പോഴത്തെ ഒരു എന്താ പറയാ ഒരു ഗുണമായിട്ടൊക്കെയാണ് എനിക്ക് തോന്നുന്നത്